മുൻകാലങ്ങളിൽ മലയാളത്തിന് വളരെ അധികം പ്രാധാന്യം കൊടുത്ത ഒരു നാട് തന്നെയായിരുന്നു കേരളം എന്നാലിപ്പോൾ പലതരം ഭാഷകളാണ് നമ്മുടെ മലയാളത്തിന് തനി മലയാളത്തിന് വന്നിട്ടുള്ളത് ഫോറിൻ കണ്ട്രീസുകളിൽ പോയിട്ട് മലയാളത്തിൽ വരുമ്പോൾ അവരുടെ സ്ലാങ്ങിൽ അറിയാതെ ഇംഗ്ലീഷ് എന്ന ഭാഷ ആർട്ടിഫിഷ്യൽ ഭാഷയെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ആ ഒരു ഭാഷ വന്നുചേരുകയും നമ്മുടെ മലയാളം അത് സ്വന്തം തള്ളിപ്പോവുകയും ചെയ്യപ്പെട്ടു അതിനാൽ പലതരം വ്യത്യസ്ഥപരമായിട്ട് പല മാറ്റങ്ങൾ ഫീച്ചേഴ്സുകൾ നമ്മുടെ തനിമലയാളത്തിന് വന്നിട്ടുണ്ട് ഒരു ജില്ലയിൽ ഒരു മലയാളമല്ലെങ്കിൽ തനിമലയാളം ഒരു രീതിയിൽ മാത്രമല്ല തെക്കനായിട്ടും അതുപോലെ വടക്കനായിട്ടും മലയാളത്തെ പല രീതിയിൽ മാറ്റങ്ങൾ തിരിച്ചുവച്ച് വച്ചവരാണ് മലയാളികൾ